നമ്മുടെ സംസ്കാരത്തിലെ വിവാഹച്ചടങ്ങുകൾ എങ്ങനെയാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാന്നു വെച്ചിട്ടുണ്ടങ്കിൽ നമുക്കാദ്യം ഒരു നിശ്ചയം ആദ്യം ഇപ്പോൾ വീട്ടിൽ അതായത് ചെക്കൻ വാ ചെക്കൻ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് പെണ്ണു കാണും പിന്നെ അതുകഴിഞ്ഞിട്ട് അതായത് രണ്ടുപേർക്കും രണ്ടുവീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് ചെക്കനും പെണ്ണിനും ഇഷ്ടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ നിശ്ചയത്തിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിക്കും പിന്നെ അതുകഴിഞ്ഞിട്ട് നിശ്ചയം നിശ്ചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോതിരം മാറലായിരിക്കും മോതിരം മാറി പിന്നെ നമ്മൾ അതായത് പിന്നെ കാർണോമ്മാർ പിന്നെ കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച് അവരത് വായിച്ചു കേൾപ്പിക്കും അതുകഴിഞ്ഞിട്ട് കല്യാണം കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ താലി കെട്ടും പിന്നെ നമ്മൾ മാല അതായത് പൂമാല അണിയും അങ്ങനെത്തെയൊക്കയാണ് പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ആണെങ്കിൽ അവർക്ക് മനസമ്മതോം മനസമ്മതം എന്ന് പറഞ്ഞൊരിതുണ്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് കല്യാണം നമുക്കെന്ന് വെച്ചാൽ അമ്പലത്തിലായിരിക്കും ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പള്ളീൽ മുസ്ലിംസിനു വെച്ചിട്ടുണ്ടങ്കിൽ വീട്ടിൽ തന്നെയായിരിക്കും അവർക്ക് ഇപ്പോൾ നൈറ്റ് ഒക്കെ ആയിരിക്കും നിക്കാഹ് എന്ന് പറഞ്ഞ സംഭവം അതായത് അവരൊരു മാലയിടും അങ്ങനെയാണ് എല്ലാവർക്കും വ്യത്യസ്തതയുള്ള ആചാരങ്ങളാണ്